ഈ കർട്ടൻ എന്നു വെച്ചാൽ തീരെ മോശപ്പെട്ടൊരു കർട്ടനാണ് കേട്ടോ പണ്ടൊക്കെ എന്നു വച്ചാൽ സാരി കൊണ്ട് അടിച്ചിരുന്ന കർട്ടനും കൂടി നല്ലതായിരുന്നു ഇപ്പോൾ ഈ കർട്ടൻ വാങ്ങി ഇട്ടിട്ട് ഒരാഴ്ച പോലും ഒരു ഒരു അലക്കിന് അതുപോയി അതിന്റെ കമ്പി ആണെങ്കിലും എല്ലാം തുരുമ്പ് പിടിച്ച് അത് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലായി ഞാൻ ആദ്യം വാങ്ങിയ കർട്ടൻ നല്ല ഇതായിരുന്നു പക്ഷേ അത് അങ്ങനെ ഞാൻ അത് മാറ്റുകയേ ഇല്ലായിരുന്നു പണ്ടേ ഒരു അഞ്ച് വർഷമെങ്കിലും എനിക്ക് കിട്ടിയിട്ടുണ്ടാവും ഇത് മങ്ങി അതിന്റെ പെയിന്റൊക്കെ പോയി കാണുമ്പോൾ നല്ല ഭംഗിയാണ് ഭംഗി കണ്ടിട്ടായിരുന്നു ഞാൻ എടുത്തത് പക്ഷേ ആ ഭംഗി പോലെയൊന്നും നമുക്ക് ഉപയോഗിക്കാൻ പറ്റില അത് പിന്നെ ഒരു അലക്കിന് തന്നെ പിന്നിപ്പോയി ഒട്ടും ജൈ വാഷ് ചെയ്യുമ്പോഴേക്ക് തന്നെ അത് പോയിരുന്നു ഒട്ടും പറ്റാത്ത രീതിയിലായി അത് അതിലും നല്ലത് സാരികൊണ്ട് അടിച്ചിരുന്നതായിരുന്നു അത് അങ്ങനെ പോലും തോന്നിപ്പോയി കർട്ടൻ വാങ്ങുമ്പം തന്നെ നമ്മളത് അതിന്റെ ഭംഗി പൂക്കളും ഇതൊക്കെ കണ്ടിട്ടായിരുന്നു വാങ്ങിയത് അതിനു അത്രയും ക്വാളിറ്റി ഇല്ലാത്ത തുണികളാണ് ഇപ്പം ഇറങ്ങുന്നത് അത് അതിന്റെ ഞൊറിവും എല്ലാം മൊത്തം കരിമ്പനടിച്ച് അത് എത്ര നമ്മൾ സൂക്ഷിച്ചാലും അത് അത്രയേ ഇത് കിട്ടുന്നുള്ളൂ